ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്തെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെയോ പ്രതിനിധീകരിച്ച് കായിക ഇനങ്ങളിൽ കളിക്കാൻ പോകുന്ന മത്സരാർത്ഥികൾക്ക് എന്തെങ്കിലും പരിക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് അല്ലെങ്കിൽ മുറിവുകൾ എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വന്നാൽ അത് എങ്ങനെയാണ് ചികിത്സിക്കുക എന്നു വെച്ചാൽ മെയിനായിട്ടും ശരിക്കും പറഞ്ഞാൽ അവരുടെ കൈയിൽ നിന്ന് പൈസ മുടക്കാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവരത് ചില ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവർ അതിനു വേണ്ടി ചികിത്സകൾ നടത്തുകയും ബാക്കി കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റാണ് ചെയ്ത് കൊടുക്കാറ് പിന്നെ എന്തെങ്കിലും ഇഞ്ചുറീസൊക്കെ പറ്റിയെന്നു പറഞ്ഞാലും അത് സ്വന്തം നേട്ടത്തിനു വേണ്ടി അല്ല അവർ കളിക്കാൻ പോകുന്നത് മറിച്ച് അവരുടെ സമൂഹത്തിൻ്റെ വളർച്ചക്കും സമൂഹത്തിൽ താ ആ വ്യക്തി കളിക്കുന്ന സമൂഹം പത്ത് പേരറിയണമെന്ന് ചിന്തയോട് കൂടെയൊക്കെയാണ് ആ വ്യക്തി ഒരു കായിക ഇനത്തിന് പങ്കെ മത്സരിക്കാൻ പോകുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അപകടങ്ങൾ ഉണ്ടാകാം എന്നുള്ള ബോധ്യത്തോടെ തന്നെ കൂടി തന്നെയാണ് ആ വ്യക്തി കളിക്കാൻ പോകുന്നത് എന്നാലും അത് അപ്പം ഗവൺമെൻറിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കടമയാണ് ആ പരിക്ക് പറ്റിയ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി കളിക്കാൻ പോയ വ്യക്തിയെ ചികിത്സിക്കുക അവർക്ക് പരിചരണം നൽകുക അല്ലെങ്കിൽ അവർക്കു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് കാരണം തൻ്റെ സ്വന്തം ജീവിതം തന്നെ ഒരു കളിയിൻ കളിയിൽ നമുക്കറിയാം ഒരു മത്സരത്തിൽ നമുക്കറിയാം ഒരു പക്ഷേ ജയിച്ചേക്കാം അല്ലെ തോൽക്കാം കൂടാതെ ശരീരത്തിന് ഇഞ്ചുറീസ് പറ്റിയേക്കാം ഇതൊക്കെ കണ്ടിട്ടും ഒരു സാമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും അതോടൊപ്പം മറ്റ് വളർച്ചക്കൊക്കെ ആയിട്ടാണ് ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ നിന്ന് മുന്നോട്ടു കളിക്കാൻ ഇറങ്ങുന്നത് എന്നിട്ടും അവർക്കെന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റിയാൽ അതു നോക്കുക അല്ലെങ്കിൽ ചികിത്സിക്കുക ചികിത്സിപ്പിക്കുക എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ ഒരു ചുമതലയാണ് അപ്പം നമുക്ക് കാരണം അതാണ് അവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷെ ആ മത്സരത്തിൽ ആ വ്യക്തി ജയിച്ചേക്കാം ജയിച്ചെങ്കിലും ഗുണം അല്ലെങ്കിൽ ഒരു അഭിമാനത്തിനായി ഒരു കാര്യം ആ വ്യക്തി വഴി നമുക്കുണ്ടായി അപ്പം ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പോരായ്മ അല്ലെങ്കിലൊരു ശാരീരികമായ അസ്വസ്ഥത അല്ലെങ്കിൽ എന്താ ഒരു മുറിവ് പറ്റിയോ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്താൽ അപകടങ്ങൾ പറ്റുകയോ ചെയ്താൽ നമുക്കു തന്നെ സമൂഹത്തിനു തന്നെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് അത് മുൻ അത് അതിൽ എന്താ പറയുക അതിൽ മുന്നോട്ടു വന്ന് അവരെ സഹായിക്കുകയെന്നുള്ളത് അതോടൊപ്പം തന്നെ ഗവൺമെൻറിൻ്റെ ചുമതലയാണ് കയികാഭ്യാ കായിക ഇനങ്ങളിൽ മത്സരിക്കുന്ന താരങ്ങൾക്ക് പരിക്കുകൾ പറ്റിയാൽ അവരെ അവർക്കു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്നൊക്കെയുള്ളതും അതോടൊപ്പം തന്നെ അവരുടെ വലിയ പരിക്കുകളൊക്കെ ആണെങ്കിൽ മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനു വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കുകയെന്നൊക്കെ ഉള്ളത് ഗവൺമെൻറിൻ്റെ ചുമതലയാണ് കാരണം ഇങ്ങനെ മത്സരിക്കാൻ പോകുന്നത് സ്വന്തം ഇഷ്ടത്തം ഇങ്ങനെ മത്സരിക്കാൻ ഒരു സമൂഹത്തിൽ നിന്ന് പോകുന്നത് സ്വന്തമായ ഇഷ്ടത്തിലും ഇഷ്ടം കൊണ്ടാണെങ്കിൽ കൂടിയും ഒരു സമൂഹത്തിൻ്റെ വളർച്ചക്ക് വേണ്ടിയും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നതത്തിനായും ഒക്കെയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം എന്താ പറഞ്ഞ ഒരു ഒരു ഒരു ഫേമസായ ഫുട്ബോൾ കളിക്കാരൻ ക്രിസ്ത്യാന റൊണാൾഡോ അത് പുള്ളിയുടെ പുള്ളിയുടെ സ്ഥലമെന്നു പറഞ്ഞാൽ പോർച്ചുഗൽ എന്ന് പറഞ്ഞ രാജ്യമാണ് അപ്പം പുള്ളി ആ രാജ്യത്തെ പ്രതിനിധീകരിച്ച് കളിക്കുമ്പം പുള്ളിക്ക് എന്തെങ്കിലും ഒരു പരിക്കുകളേൽക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് വരികയൊക്കെ ചെയ്താലും പുള്ളിയുടെ ഉത്തരവാ പുള്ളിയുടെ രാജ്യത്തിനാണ് നല്ല ഉത്തരവാദിത്വം ഉണ്ട് പുള്ളിയെ ചികിത്സിക്കാനും മുന്നോട്ടുള്ള കാര്യങ്ങൾക്കായുള്ള ഫണ്ട് നൽകാനും പുള്ളി താമസിക്കുന്ന സമൂഹത്തിന് പുള്ളിയോട് ചുമതല ഉണ്ട് അല്ലേൽ കടപ്പാടുണ്ട് അപ്പോൾ ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്